ഞാൻ എൻ്റെ കുടുംബത്തിനാണ് ഏറ്റവും കൂടുതൽ വില നൽകുന്നത് കാരണം എൻ്റെ കുടുംബം എന്നെ വളർത്തിയതും നല്ല കഷ്ടപ്പാടിലൂടെയാണ് കാരണം എൻ്റച്ഛൻ മരിച്ചിട്ട് പതിനാല് വർഷമായി അപ്പം എൻ്റമ്മയാണ് അധികം എന്നെ നോക്കിയത് ഇത് പൈസേൻ്റെ കാര്യത്തിലും കുറച്ച് ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുടുംബമാണ് ഞങ്ങളുടേത് അപ്പോൾ എൻ്റമ്മയാണ് ജോലി ചെയ്ത് ഞങ്ങളെ വളർത്തിയത് പിന്നെ സ് സ്കൂളിലും കോളേജിലൊക്കെ ചേർത്തത് എന്നെ എൻ്റമ്മയാണ് അതുകൊണ്ട് ഞാനെൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ വില കൽപ്പിക്കുന്നത് പിന്നെ വിദ്യാലയം വിദ്യാലയമെന്ന് പറഞ്ഞാൽ ഞാൻ പല വിദ്യാലയങ്ങളിലും പഠിച്ചിട്ടുണ്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ കൂട്ടുകാരും പിന്നെ ടീച്ചേസ്മാരും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലായാലും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എനിക്കങ്ങനെ നല്ലവണ്ണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് അതിൻ്റെ കഷ്ടങ്ങളൊക്കെ അറിയാമായിരുന്നു അതുകൊണ്ട് എൻ്റെ കുടുംബം ഞാൻ എന്നെ എങ്ങനെ വളർത്തിയതെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനാ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നതാണ് ടീച്ചർസൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ടീച്ചർമാരെ ഞാൻ ബഹുമാനിക്കുന്നു എൻ്റെ കൂട്ടുകാർ അവരൊക്കെ എന്നെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യത്തിനും പൈ മണിയുടെ കാര്യത്തിലാണെങ്കിലും എന്നെ എന്ത് കാര്യത്തിലാങ്കും നല്ലവണ്ണം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളാണ് പിന്നെ എൻ്റെ ഫാമിലിയിൽ എന്നെ സഹായിക്കാൻ എൻ്റെ അച്ഛൻ്റെ അനിയന്മാരും പിന്നെ അമ്മേ അമ്മയുടെ ചേട്ടന്മാരും അനിയത്തിമാരും അങ്ങനെ കുറെ ആളുണ്ട് അവരൊക്കെ ഞങ്ങളെ സഹായിക്കുമായിരുന്നു പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ഇത് നല്ലവണ്ണം ചിലവെല്ലാം വന്നിരുന്നു എൻ്റെ അമ്മയ്ക്ക് അതൊക്കെ കൈകാര്യം ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് എൻ്റമ്മയാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് കാരണം എൻ്റെ അമ്മയാണ് എന്നെ ഇരുത്തി ഇത്രയും പഠിപ്പിച്ചട്ട് എന്നെ ഇവിടം വരെ എത്തിച്ചത് അതുകൊണ്ട് എനിക്ക് ഫാമിലിയാണ് എനിക്ക് ഏട്ടനും അനിയനും ആണ് ഉള്ളത് ഏട്ടനാണെങ്കിലും ഇത് ഏട്ടൻ്റെ കാര്യത്തിലാണെങ്കിലും അമ്മ നല്ലവണ്ണം ശ്രദ്ധ വരുത്തിയിരുന്നു കാരണം വിദ്യാഭ്യാസത്തിലും പക്ഷേ ഏട്ടന് ഹയർ സ്റ്റഡീസ് ഇഷ്ടമില്ലാത്തതു കൊണ്ട് ഇപ്പോൾ ജോലിക്ക് പോകുന്നതാണ് ഇപ്പോൾ ഏട്ടനും എൻ്റെ ചില കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അനിയനാണെങ്കിലും അനിയനും ഇപ്പോൾ വിദ്യ പഠിക്കുന്നുണ്ട് പിന്നെ അതുകൊണ്ട് ജീവിതത്തിൽ എനിക്ക് എല്ലാറ്റിനേക്കാളും എനിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഞാൻ എൻ്റെ കുടുംബത്തിനാണ് കുടുംബമാണ് എനിക്ക് കുടുംബം കഴിഞ്ഞിട്ടേ വേറെ എന്തുമുള്ളൂ എന്ന് ചിന്തിക്കുന്നതാണ് ഞാൻ കാരണം എനിക്ക് എല്ലാറ്റിനും എൻ്റെ എല്ലാ ആവശ്യത്തിനും എൻ്റെ ആഗ്രഹത്തിനു പോലും എല്ലാറ്റിനും കൂട്ടുനിന്നത് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും പിന്നെ എൻ്റെ ഫാമിലിയുമാണ് അതുകൊണ്ട് എനിക്കെൻ്റെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് പിന്നെ ചെറുപ്പത്തിൽ നല്ലവണ്ണം പൈസയുടെ കാര്യത്തിൽ എൻ്റമ്മ കുറേ കഷ്ടം വന്നിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഇപ്പോൾ എൻ്റെ അമ്മയെ സന്തോഷിക്കണം എന്ന് എനിക്ക് നല്ലവണ്ണം ആഗ്രഹമുണ്ട് എനിക്കൊരു ജോലി നേടി അത് കൊടുക്കണമെന്ന് നല്ലവണ്ണം ആഗ്രഹമുണ്ട് പിന്നെ എൻ്റമ്മയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിലപ്പെട്ട ഒരാളാണ് കാരണം നല്ലവണ്ണം കഷ്ടം വന്നിട്ടുണ്ട് എൻ്റച്ഛൻ മരിച്ചിട്ട് പതിനാല് വർഷമായി ഈ പതിനാല് വർഷം ഞങ്ങളെ എങ്ങനെ വളർത്തിയതെന്ന് എനിക്കറിയാം കാരണം അത്രക്കും കഷ്ടമാണ് എൻ്റമ്മ വന്നത്

അച്ഛൻ അച്ഛനെന്നു പറഞ്ഞാൽ അച്ഛൻ ഉള്ളിടത്തോളം നമ്മളെ നല്ലവണ്ണം നോക്കി നമ്മളുടെ എല്ലാം ഇഷ്ടങ്ങളെല്ലാം അറിഞ്ഞു കൊണ്ട് നമ്മളെ ഇതാക്കി അമ്മ പറഞ്ഞിട്ട് കേ പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടെനിക്ക് അതുകൊണ്ട് എനിക്ക് അമ്മ എങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയത് എന്ന് നമക്ക് എനിക്കറിയാം എൻ്റെ ഏട്ടനെയാണെങ്കിലും എൻ്റെ അനിയനെയാണെങ്കിലും എന്നെയാണെങ്കിലും എല്ലാ ഇഷ്ടങ്ങൾക്ക് അമ്മ ഇതുവരെ എതിരു നിന്നിട്ടില്ല കുടുംബം പിന്നെ എൻ്റെ ഫ്രണ്ട്സാണെങ്കിലും അതെ എന്ത് കാര്യത്തിലും നല്ലവണ്ണം ഇത് സഹായത്തിനുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ടീച്ചേഴ്സ് പിന്നെ എൻ്റെ ഫാമിലിയിൽ റിലേറ്റീവ്സ് ഒക്കെ എൻ്റെ കസിൻ കസിൻ സിസ്റ്ററുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു സംസാരിക്കുന്നത് എൻ്റെ കസിൻ സിസ്റ്ററോടാണ് പിന്നെ ഞാൻ അവരുടെ കൂടെ അധികം ചിലവഴിക്കാറുണ്ട് കാരണം എൻ്റെ സങ്കടമായാലും എൻ്റെ സന്തോഷമായാലും ഞാൻ എൻ്റെ ആ സിസ്റ്ററോട് ഞാൻ പറയുമായിരുന്നു പിന്നെ മണിയുടെ എൻ്റെ നമുക്കൊരു വീടുണ്ടായിരുന്നില്ല കാരണം എൻ്റെ അം ഞാൻ ചെറുതായിരിക്കുമ്പോഴാണ് എനിക്കൊരു അമ്മയ്ക്ക് അമ്മ ഒരു വീട് കെട്ടണമെന്ന് അമ്മ ആഗ്രഹിച്ചത് എന്നിട്ടാണ് അമ്മ എൻ്റമ്മ ഒന്നിച്ചു ഒറ്റയ്ക്ക് ഒറ്റക്ക് ഇതാക്കിയാണ് വീടായത് അതുകൊണ്ട് എനിക്കറിയാം അമ്മ നല്ലവണ്ണം കഷ്ടം വന്നിട്ടുണ്ടെന്ന് പിന്നെ പിന്നെ അമ്മ വീടിനു വേണ്ടി കുറേ പൈസ ചിലവഴിച്ചിരുന്നു കടങ്ങളുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ കടമൊക്കെ മാറി എന്നാലും ചെറിയ ചെറിയ കടങ്ങളൊക്കെ ബാക്കിയുണ്ട് പിന്നെ അതുകൊണ്ട് എനിക്ക് അമ്മയെ എനിക്ക് ഫാമിലി ഫാമിലിയോടെ ഒന്നിച്ചിരിക്കുമ്പോൾ ഒരു സമാധാനം പോലെയാണ് നമുക്ക് എല്ലാം ചിന്തിക്കാനും ഓപ്പണായി സംസാരിക്കാൻ പറ്റുന്നത് നമ്മുടെ ഫാമിലിയോടാണ് ഫ്രണ്ട്സിനോടൊക്കെയാണ് ഇങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നത് പിന്നെ എന്ത് കാര്യമായാലും തുറന്നു പറയാനുള്ളൊരു നമ്മളൊരു ഇതാണ് ഫാമിലി എന്നു പറയുന്നത് എന്ത് കാര്യങ്ങളായാലും നമുക്ക് തുറന്നു സംസാരിക്കാൻ പറ്റുന്നു പിന്നെ അമ്മ എന്ന് പറയുന്നത് ഞാൻ ദൈവത്തെ പോലെയാണ് എൻ്റമ്മയെ കാണുന്നത് കാരണം എൻ്റമ്മയെ എൻ്റമ്മ നല്ലവണ്ണം കഷ്ടം വന്ന് വന്നിട്ടാണ് ഞങ്ങളെ വളർത്തിയതെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വില കൊടുക്കുന്നത് എൻ്റെ കുടുംബത്തിനാണ് കുടുംബമായി കുടുംബം കഴിഞ്ഞിട്ടേ എനിക്ക് ബാക്കിയെല്ലാമുള്ളു പിന്നെ ഫ്രണ്ട്സും ടീച്ചേഴ്സും കോളേജും കോളേജെന്നു പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് മൂന്നു വർഷമാകുന്നു എനിക്ക് കിട്ടിയ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ് എല്ലാറ്റിനും